ഹലോ ഊബർ ഓട്ടോടിക്കുന്ന ആളല്ലേ അത് ഞാൻ കുറേ സമയമായി നിങ്ങളെ വിളിക്കുന്നു നിങ്ങൾ ഫോൺ എടുക്കുന്നേ ഇല്ലാ ഇപ്പം കിട്ടിയത് തിരക്കിലായി പോയി കുഴപ്പമില്ല ഞാനേ പിന്നെ എനിക്കൊന്ന് തലശ്ശേരി വരെ പോണേനു അത് വസ്ത്രം വാങ്ങാൻ വേണ്ടിട്ടായിരുന്നു ശോഭ വസ്ത്രാലയമില്ലേ എനിക്ക് അറിയില്ല അത് എവിടെയാ തലശ്ശേരി എവിടെയാന്നൊന്നും എനിക്ക് അറിയില്ല അപ്പോൾ പിന്നെ എന്റടുത്ത് ലൊക്കേഷനുണ്ട് അതനുസരിച്ചിട്ട് പോകണം നിങ്ങൾക്ക് വരാനൊന്നു സമയമുണ്ടാവോ എത്ര മണിക്കാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഞാ എനിക്ക് വസ്ത്രം മാറി നിൽക്കേണ്ട ഒരു സമയമേ ഉള്ളൂ ഒന്ന് പോകുവാണെങ്കിൽ എനിക്ക് എൻ്റെ മാമൻ്റെ മോള കല്യാണമാണ് അപ്പോൾ അതിനു വേണ്ടീട്ട് ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിട്ടായിരുന്നു അപ്പോൾ പിന്നെ വാങ്ങിയിട്ട് കുട്ടികളുടെ ഡ്രെസ്സെല്ലാം തൈക്കാനെല്ലാം കൊടുക്കണം അപ്പോൾ സമയം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് തയ്ച്ചു കിട്ടാനെല്ലാം ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നിങ്ങൾ ഒന്നു വരുകയാണെങ്കിൽ വന്നു വേഗം എടുത്തിട്ട് തിരിച്ചു വരാമായിരുന്നു നിങ്ങളെ ഞാൻ വേഗം വിടും ആ ഈ ഓട്ടോയിൽ തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരിക അപ്പോൾ വേഗം വന്നിട്ട് വേഗം തന്നെ മടങ്ങി വരാം നിങ്ങളെ അധികം നിർത്തിക്കൂല്ല എ വേഗം വന്നിട്ട് പോകാം